ഞാൻ ഒരുപാട് എൻ്റെ ചെറുപ്പത്തിലും വലിപ്പത്തിലുമായിട്ട് ഒരുപാടു പ്രദർശനങ്ങളിലും മത്സരങ്ങളിലും എൻ്റെ കലാ സൃഷ്ടികള് നൽകിയിട്ടുണ്ട് കൂടുതലും ഞാൻ എൻ്റെ കവിതകളും കഥകളുമാണു നൽകി നൽകിയിട്ടുള്ളത് അതു നൽകുമ്പോള് വളരെയധികം ഒരു നമുക്കൊരു ആത്മനിർവൃതിയുടെ അനുഭവങ്ങളായിരിക്കും എല്ലാ പ്രാവശ്യവും എനിക്ക് ഈ ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ കല അല്ലെങ്കിൽ പ്രദർശനത്തിനോ വേണ്ടി എൻ്റെ ഒരു കലാസൃഷ്ടി നൽകുമ്പോഴുള്ള എൻ്റെ ഒരു അനുഭവം അതായതു നമ്മള് സ്വയം നമ്മുടെ സമയം ചെലവാക്കി നമ്മുടെ ഭാവനയിൽ നിന്നും എഴുതിയുണ്ടാക്കിയ നമ്മുടെ സമയം ചെലവാക്കി നമ്മുടെ കഴിവുകൊണ്ടും ഭാവന കൊണ്ടും എഴുതിയുണ്ടാക്കിയ ഒരു കാര്യം പൂർത്തിയാക്കിയിട്ട് അതൊരു പ്രദർശനത്തിനു മറ്റുള്ളവർക്കു വായിക്കാനും വേണ്ടി നമ്മള് നൽകുമ്പോള് ഉണ്ടാവുന്നൊരു ആത്മനിർവൃതി അത് ഒരു അതൊരു വേറെ അനുഭവം തന്നെയാണ് പിന്നീട് ചിത്രരചനാ മത്സരങ്ങളെക്കുറിച്ചു പറയുകയാണെങ്കില് ചിത്രരചനാ മത്സരങ്ങളില് ഞാന് പങ്കെടുത്തതു വളരെ കുറവാണ് പക്ഷെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടൊരുവട്ടം ചുങ്കത്തറ ആ ബാലരമ നടത്തിയ ഒരു ചിത്രരചന മത്സരത്തില് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നീടു ചിത്രരചനയെക്കാള് എനിക്കിഷ്ടം കവിതകളോടും കഥകളോടുമാണ് എന്നു മനസ്സിലാക്കിയതിനുശേഷം ഞാൻ അധികവും കവിതയിലും കഥയിലുമാണു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീട് ഞാന് വലുതായതിനുശേഷം കവിതാരചനയിലും കഥാരചനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീട് കവിത രചനാ മത്സരങ്ങളിലും കഥാരചനാ മത്സരങ്ങളിലും സജീവമാവുകയും ചെയ്തു കവിതകളില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി എന്നുപറഞ്ഞാല് ഒരു പദ്യം പദ്യം പദ്യം പ്രധാനമായിട്ടു വരുന്നൊരു രീതിയാണ് വല്ലാതെ ആശയങ്ങളുടെ മേൽ ഊന്നൽ നൽകുന്നതിനപ്പുറം ഒരു രസകരമായ രീതിയില് എഴുതി വളരെ രീതിയില് ചെറിയൊരാശയം നമുക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കവിതാ രചനാരീതി അതുപോലെത്തന്നെയാണു കഥയിലും എനിക്ക് ആളുകളുടെ ഒരു താല്പര്യം പിടിച്ചു വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്നത് കൂടുതലും ആ ആശയങ്ങളെ വല്ലാതെ കുത്തി നടക്കുന്നതിനുപകരം ആളുകളെ രസകരമായ രീതിയിൽ എഴുതുക എന്നുള്ളതാണു കാര്യം